ഞാന് സമൂഹമാധ്യമത്തിലൊന്നും പോസ്റ്റൊന്നും ചെയ്യലില്ല പക്ഷേ ഞാന് കുറേ ആള്ക്കാര്ക്ക് ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് ഞാന് നേരത്തെ പറഞ്ഞല്ലോ നാട്ടുകാര്ക്കൊക്കെ ഫോട്ടോ എടുത്തുകൊടുക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് ഞാന് ഫോട്ടോ എടുക്കുന്നത് ഓല് നേരെ ഓരെ സമൂഹ മാധ്യമങ്ങളില് ഇടും അതുകൊണ്ട് അതില് കുറേ ലൈക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള കമൻറ്റും ഒക്കെ വരും അങ്ങനെയാണ് ഞാന് സമൂഹ മാധ്യമങ്ങളില് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഓല് ഇന്സ്റ്റഗ്രാമിലൊക്കെയാണ് പോസ്റ്റ് ചെയ്യല് ചെലോല് ഇന്സ്റ്റഗ്രാമില് പോസ്റ്റ് ചെയ്യും ചെലോല് വാട്ട്സ്അപ്പില് സ്റ്റാറ്റസ് വയ്ക്കും ചെലോല് ഫേസ്ബുക്കില് കുറേ അമ്മാവന്മാരുണ്ടല്ലോ ഓലൊക്കെ ഫേസ്ബുക്കിലക്കും ആ അങ്ങനെ തന്നെ പിന്നെ എന്തുകൊണ്ടന്നെക്കെ ചോദിച്ചാല് ഇതിന്റെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണല്ലോ ഫോട്ടോ എടുത്തുകൊടുക്കുന്നത് അപ്പോള് അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാവര്ക്കും ഫോട്ടോ എടുത്തുംകൊണ്ട് ഞാനതിന് പൈസയൊന്നും വാങ്ങുന്നില്ല കെട്ടോ എല്ലാവര്ക്കും സൗജന്യമായിട്ട് ഫോട്ടോ അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ് അതുകൊണ്ട് ച്ചാല് നാട്ടില് നല്ല വിലയൊക്കെ ഉണ്ട് പിന്നെ എല്ലായിടത്തും നല്ല വിലയൊക്കെയുണ്ട് എന്റെ താത്ത തന്നെ ഞാന് താത്താക്ക് ഞാന് എന്റെ കുറേ ഫോട്ടോ അങ്ങോട്ട് കുറേ ഫോട്ടോ അങ്ങ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അഒക്കോള് ഇൻസ്റ്റഗ്രാമിലും വയ്ക്കും ഇന്സ്റ്റഗ്രാമില് വെച്ചാണ്ട് കുറേ ലൈക്കും കുറേ കമൻറ്റും കുറേ ഫോളോവേഴ്സും ഒക്കെ കിട്ടും ഇൻസ്റ്റഗ്രാമിലിട്ട് അങ്ങനെ കുറേ വേറെയൊന്നുമില്ല ഇതുതന്നെ ഫോട്ടോ ആക്കാൻ ഇൻറ്റൊര് വികാരമാണ് അതുകൊണ്ട് ഞാന് എല്ലാവര്ക്കും എടുത്തുകൊടുക്കുന്നു അത്രതന്നെയേ ഉള്ളൂ വേറൊത്തുല്ല